കൃഷിയിലും വീട്ടുമുറ്റത്തും വളർത്തുന്ന സാധാരണ വളർത്തു പക്ഷികൾ എന്ന് പറയുമ്പോള് സാധാരണ കോഴികളാണ് കോഴികള് താറാവുകള് പിന്നെ നമ്മളെ വീടുകളില് ഓമനിച്ചു വളർത്തുന്ന തത്ത അതുപോലെതന്നെ മൈന അങ്ങനൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ളത് ഇതുള്ള പക്ഷി അത് ഞങ്ങ എനി ഞങ്ങളുടെ വീട്ടില് കോഴി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴില്ല പിന്നെ അതിനെക്കുറിച്ച് അതിൻ്റെ ബിസിനസ് അതിൻ്റെ ബിസിനസ് ചെയ്യുന്നത് നല്ലതാണ് കോഴിയെ കോഴിയേ ഇപ്പോള് നല്ലതാണ് കോഴി വളർത്തല് നല്ലൊരു ബിസിനസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അത് നമുക്ക് നല്ലൊരു വരുമാനമാർഗ്ഗമാണ് അപ്പോള് അത് അതിനെ നമ്മള് മുട്ട വിരിയിച്ച് കോഴിയെ അട വെച്ച് മുട്ട വിരിയിച്ചിറക്കി കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തി നല്ല രീതിയില് നമുക്കതിനെ പരിപാലിച്ചാൽ നമുക്ക് നല്ല ലാഭം നേടാൻ അതിനെ അതിൽ നിന്ന് പറ്റും അപ്പോള് നമുക്ക് നല്ല ഒരു വരുമാന മാർഗ്ഗവും കൂടാണത് കാരണം നമ്മള് അതിനുവേണ്ടി പ്രത്യേകിച്ച് കൂടുകളും ഒക്കെ തയ്യാറാക്കി അങ്ങനെയൊ പ്രത്യേകിച്ചു മുട്ടയിടാൻ ഉള്ളൊരു സ്ഥലം ഇപ്പോള് ഇപ്പഴത്തെയുളള കൂടുകളൊക്കെ അങ്ങനൊക്കെയുള്ളതാണല്ലോ കാരണം കമ്പി ടൈപ്പ് വരുന്ന അതിലൊക്കെ നമുക്കത് അങ്ങനെയാണ് അതിൻറെ ഇത് കൂടിൻ്റെയൊരു നിർമ്മാണങ്ങളൊക്കെ അങ്ങനാണ് വരുന്നത് മുട്ടയിടാനായിട്ടുള്ളൊരു സ്ഥലം വേസ്റ്റ് ഇടാൻ ഒരു സ്ഥലം പിന്നെ ഇതിൻ്റെ കോഴിക്കാഷ്ടമാണെന്നു പറഞ്ഞാല് നമുക്ക് നമ്മുടെ കൃഷികളിലൊക്കെ നമുക്ക് വളമായിട്ടൊക്കെ ഉപയോഗിക്കാം അപ്പോള് അതൊക്കെ വളരെ നല്ല കാര്യമാണ് പിന്നെ കോഴിയുടെ മുട്ട നമുക്ക് ഡെയിലി ആണന്നു നമുക്ക് മുട്ട എന്നും ഉപയോഗിക്കാം മുട്ട ഒരു ദിവസം ദിവസങ്ങള് ഒരു ദിവസം ഒരു മുട്ട എങ്കിലും കഴിക്കാനുള്ളതാണ് നമ്മുടെയൊക്കെ അത് അപ്പോള് നമുക്ക് നമ്മുടെ വീടുകളിൽ വളർത്തുന്ന നല്ല നാടൻ കോഴിയുടെ മുട്ടയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് നമ്മളെ ബ്ലോക്കില്നിന്ന് ബ്ലോക്ക് കോഴിയുടെ കഴിക്കുന്നതിൻ്റെ ഗുണം ഇല്ല നാടൻ മുട്ടയ്ക്ക് ആവുമ്പോള് അതിൻറ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട് നമുക്ക് എപ്പോഴും അത് നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ആണെന്ന് പറഞ്ഞാലും മുതിർന്നവർക്ക് കഴിക്കാൻ ആണെങ്കിലും നല്ലതാണ് അപ്പോള് അത് നല്ല ഒരു കാര്യമാണ് അപ്പോള് അതുകൊണ്ട് നല്ല നല്ല അത് നമുക്ക് അതിനെ അത് നമുക്ക് ഒരു ബിസിനസ് ആക്കി എടുത്താലും അത് നല്ലത് നല്ലത് തന്നെയാണ് ബിസിനസ് ആക്കി എടുത്താല് നല്ലത് തന്നെയാണ് നമുക്ക് പിന്നെ താറാവിന് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പൊതുവേ നമുക്ക് ഈ സ്ഥലങ്ങളിൽ പത്തനംതിട്ട ജില്ലകളിലോട്ട് ഒന്നും അങ്ങനെ കൂടുതലും താറാവിനെ ഒക്കെ വളർത്തുന്നത് ആലപ്പുഴ ആ പ്രദേശങ്ങളോട്ടൊക്കെയാണല്ലോ കാരണം അവിടാണല്ലോ കൂടുതലും കായൽ പ്രദേശങ്ങളും അവിടെ ആയതുകൊണ്ടാണ് അവിടങ്ങളിലാണ് ഞാൻ അതിനെ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് നമ്മുടെ ഇവിടെയൊന്നും അത്ര അത്ര ഇതായിട്ട് കണ്ടിട്ടില്ല അതും നല്ല ഒരു കാര്യമാണ് കാരണം അതും എപ്പോഴും നല്ല അതു നല്ല വൃത്തിയുള്ള പക്ഷി ആണെന്നു ഞാൻ പറയും കാരണം എന്നാന്നു വച്ചുകഴിഞ്ഞാൽ വെള്ളത്തിലാണ് എപ്പോഴും അതിൻ്റെതായിട്ടുള്ള എപ്പോഴും അതുതൊണ്ട് നല്ല എപ്പോഴും നീറ്റ് നല്ല വൃത്തിയായിട്ട് നടക്കുന്ന ഒരു പക്ഷിയാ നല്ല വൃത്തിയായിട്ടുള്ള ഒരു പക്ഷി ഇനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്